ഇപ്പം എൽ പി ജി എൽ പി ജി സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ സ ഇതിന് ഏറ്റവും വലിയ പ്രിക്കോഷനാണെന്നു വെച്ചാൽ ഓണാക്കുമ്പോൾ മണം ഉണ്ടോയെന്നാദ്യം നോക്കുക ഇപ്പം മണമുണ്ടെങ്കിൽ ഇത് മണം ഉണ്ടെങ്കിൽ ലീക്കുണ്ടെന്ന് മനസ്സിലാകും അങ്ങനെയാണ് അപ്പത്തന്നെ എല്ലാം അപ്പത്തന്നെ സിലിണ്ടർ ഓഫ് ചെയ്യുക പിന്നെ ജനലൊക്കെ തുറക്കാം മണം പോകുന്നിടം വരെ ആ ജനൽ തുറന്നിടുക എന്നു വെച്ചാൽ ഇപ്പം മണം മണം പോ മണം ഉള്ള സമയത്ത് ലീക്കുണ്ടെന്നു മനസ്സിലാകും അപ്പങ്ങനെയാണ് വല്ലതും വേറെ എക്സ്ട്രാ ലൈറ്റ് വല്ലതും ഉണ്ടാക്കി സ്പാർക്കടിച്ച് മിക്ക് ഇന്ന് മിക്കവാറും ഇതാകും ചാ മിക്കവാറും ഫുള്ള് ആകും ആ ഫുള്ളിൽ കത്താൻ ചാൻസുണ്ട് അപ്പങ്ങനെയാണെങ്കിൽ അതു കൊണ്ടു തന്നെ അത് സ്വിച്ചൊന്നോണാക്കാതിരിക്കുക എന്നിട്ട് മണം ഫുള്ളി പോയെന്ന് കംപ്ലീറ്റ്ലി എൻഷുവർ ചെയ്യുക എൻഷുവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഓണാക്കുക ഓണായി കഴിഞ്ഞ് വീണ്ടും മണം വരികയാണ് വീണ്ടും മണം വരും ഇപ്പം മണം വരുന്നില്ലേൽ